ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഒൻപത് ലക്ഷത്തി ഒം തൊണ്ണൂറ്റൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഒൻപത് ലക്ഷത്തി ഒൻപതി നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റൊൻപതിനായിരത്തി തൊള്ളായിരത്തിതൊണ്ണൂറ്റി അഞ്ച്